ദിവസം മുഴുവൻ ഏറ്റവും അത്യാവശ്യാണ് വെള്ളം ആദ്യം തന്നെ ഞാൻ ദിവസത്തിൽ ചെയ്യുന്ന കാര്യം എണീച്ചിട്ട് പല്ല് തേക്കുക എന്നുള്ളതാണ് അപ്പം പല്ല് തേക്കുമ്പോൾ തന്നെ വെള്ളം ആവശ്യമാണ് പിന്നെ വൃത്തിയാകുവാനും വെള്ളം ആവശ്യമാണ് പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പ്രഭാത ഭക്ഷണം കഴിക്കുമ്പം ആ രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പം വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ചായ ഉണ്ടാക്കാനാണെങ്കിൽ വെള്ളം ആവശ്യമാണ് ചായ ഉണ്ടാക്കുമ്പോൾ പാൽ കട്ട കാപ്പി ഉണ്ട് അല്ലെങ്കിൽ ചായ ഉണ്ട് അപ്പം ചായ ആവശ്യമാണ് ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം ആവശ്യമാണ് പിന്നീടിപ്പോൾ ഏത് ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യമാണ് കാരണം ഇപ്പം ഒരു ഉപ്പ് മാവ് ഉണ്ടാക്കാണെങ്കിൽ അതിനകത്ത് വെള്ളം ആവശ്യമാണ് അപ്പം ഉണ്ടാക്കാണെങ്കിൽ അതിനകത്ത് വെള്ളം ആവശ്യമാണ് മുട്ട പുഴുങ്ങാനാണെങ്കിൽ അതിനകത്ത് വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വെള്ളം എവിടെ നോക്കാണെ നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെ നോക്കുവാണെ വെള്ളത്തിൻ്റെ ആവശ്യകത ഉണ്ട് പിന്നീട് നമുക്ക് വെള്ളം ആവശ്യമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ സ്കൂളിൽ പോവുമ്പം എപ്പോഴും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ നോക്കുക അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ വെള്ളം ആവശ്യമാണ് പിന്നീട് വെള്ളത്തിൻ്റെ ആവശ്യകത വരുന്നത് എന്ന് വെച്ചാൽ ഉച്ച ഭക്ഷണം ആകുമ്പോഴാണ് ഉച്ച ഭക്ഷണം ആകുമ്പോൾ അവിടെയും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട് ഇപ്പോൾ ഒരു ചെറിയ സാമ്പാറുണ്ടാക്കുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം ആവശ്യം ഉണ്ട് പിന്നെ ഇപ്പോൾ ചോറ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ മലയാളികളെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചോറ് ഒരു മലയാളിക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ജനിച്ചുകഴിഞ്ഞ ഒരു മലയാളിക്കും ഉച്ചക്ക് ഒരു ചോറ് കഴിക്കാതെ അവന് പൂർണ്ണമായി ഒരു വിശപ്പ് മാറുമെന്ന് ഞാൻ കരുതുന്നില്ല അതുപോലെത്തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന ലിറ്റർ വെള്ളം കുടിക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ലിറ്റ്റ് നമ്മൾ വെള്ളം എപ്പോഴും ഡെയിലി കുടിച്ചിരിക്കണം പിന്നീട് വെള്ളത്തിൻ്റെ ഉപയോഗത്തെ പറയുകയാണെങ്കിൽ പിന്നീട് വന്ന് നമുക്ക് ശുചിയാവണമെങ്കിലും ഇപ്പം എന്തെങ്കിലും ഷീണം തോന്നുവാണെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട് ഇപ്പം നൈറ്റ് ആണെങ്കിലും പല്ല് തേക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യകത ഉണ്ട് പിന്നെ എന്തൊരു വീട്ട് കാര്യത്തിനും മുറി ക്ലീനാക്കാനാണെങ്കിലും ക്കെ വെള്ളം നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത്യാവശ്യം വെള്ളം കുടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറുകയാണ് ഇപ്പം എന്തൊരു ചായ ഉണ്ടാക്കുവാണെങ്കിലും അതിനകത്ത് വെള്ളത്തിൻ്റെ ഉപയോഗം നമുക്ക് കാണാവുന്നതാണ് പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളം സഹായിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹോബീസ് അതായത് നീന്തൽ എന്നിവയിലൊക്കെ വെള്ളം കൊണ്ട് നമുക്ക് പുതിയ പുതിയ ഹോബീസ് നമുക്കുണ്ടാകുന്നതാണ് ഇപ്പം പിന്നെ ചെടികൾ നനക്കുന്നതിനും ഒക്കെ മെള്ളം നമുക്ക് ഉപയോഗിക്കാം ഒരു ചെടിക്കും വെള്ളം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല ചെടികൾക്ക് വെള്ളം ഒഴിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് വളരുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വ്യക്തി നിത്യജീവിതത്തിൽ ചെടിക്ക് ഒരു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാളുടെ കാര്യത്തിൽ അപ്പളും വെള്ളം ആവശ്യമാണ് പിന്നെ തുണി കഴുകുന്നതിനും വെള്ളം ആവശ്യമാണ് ഇപ്പം ഏതൊരു തുണി കഴുകുവാനും വെള്ളത്തിൻ്റെ ആവശ്യകത നമുക്കവിടെ കാണാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വെള്ളം ഒരു നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ് വീട് പണി വീട് പണിയുമ്പം സിമെൻ്റ് കുഴക്കുവാനും ഒക്കെ വെള്ളത്തിൻ്റെ ആവശ്യകത നമുക്ക് കാണാവുന്നതാണ് പിന്നീട് മഴ പെയ്താൽ മാത്രമേ നമുക്കൊരു തണുപ്പും ഒക്കെ ആവശ്യം ഉള്ളൂ അത് കൊണ്ട് തന്നെ പിന്നെ മറ്റ് ഏതൊരു സസ്യജാല ജീവജന്തുക്കൾക്കും ജീവിക്കുവാനാണെങ്കിൽ ജലത്തിൻ്റെ ആവശ്യകത നമുക്ക് എവിടെയും കാണാൻ സാധിക്കാവുന്നതാണ് സോ അതുകൊണ്ടൊക്കെ തന്നെ വെള്ളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി തന്നെ നമുക്ക് കാണാവുന്നതാണ് പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആ ഒരു ആവശ്യമാണ് കുടിവെള്ള കുടിവെള്ളത്തിൻ്റെ ആവശ്യം ഏതൊരു വ്യതിക്കും ഇത്രയും കാലഘട്ടം ജലമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല എവിടേക്ക് ജലം നമ്മൾ മാറ്റി വെച്ചാലും വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിച്ച് പോവാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ ബോഡി ഡ്രൈ ആവും അതനുസരിച്ചുള്ള രോഗങ്ങൾ വരും അതുകൊണ്ടൊക്കെ തന്നെ ജലത്തിൻ്റെ ആവശ്യകത വളരെ വളരെയധികമാണ് സോ വെള്ളമെന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്